ഹൈക്ക് ചെയ്യാൻ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് മലമുകളിലേക്കുള്ള ഹൈക്കുകൾ പിന്നെ ഉള്ളത് കാടുകളും പുഴകളും വെള്ളച്ചാട്ടവും അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഹൈക്കും ഇതിൽ മലകളുടെ മലകളുടെ മുകളിലേക്കുള്ളൊരു അതായത് അതിൻ്റെ കൊടുമുടി ആ അവിടെക്കുള്ള ഹൈക്കുകളാണ് കൂടുതലും നമുക്ക് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും നൽകുന്നത് കാരണം നമ്മളവിടെ എത്തിച്ചെൽ എത്തിപ്പെടുമ്പോൾ നമ്മളത്രയും നേരം കഷ്ട്ടപ്പെട്ടതിൻ്റെ ഒരു ഒരു നമ്മളത്രയും നേരം കഷ്ട്ടപ്പെട്ടതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാകുന്നത് അവിടെ എത്തുമ്പോഴാണ് മേളിൽ അവിടെ ആ അതും അതിരാവിലെ നമ്മൾ അത്രയും കഷ്ട്ടപ്പെട്ട് നേരത്തെ എണീറ്റ് ഒരു നാല് നാലേ മുക്കാലിനൊക്കെ എണീറ്റ് നമ്മൾ അവിടേക്ക് നടന്ന് നടന്ന് പോകുമ്പോൾ നമ്മളോരോ കിലോമീറ്ററും കടന്ന് പോകുമ്പോഴും നമ്മൾ മുകളിലേക്ക് അടുത്ത് അടുത്തെത്തി കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മളെ നമ്മുടെ മുന്നിൽ തുറന്നു വരും അതുകണ്ട് നിൽക്കുന്ന അത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നില്ലാത്ത ഒരു സന്തോഷവും നമുക്കത്രയും നേരം ഉണ്ടാവേണ്ടിയിരുന്ന ഒരു സമാധാനവും നമുക്ക് ലഭിക്കും ഇനി നമ്മൾ വനങ്ങളിൽ ഹൈക്കുകളെ കുറിച്ച് സംസാരിക്കുവാണേൽ അത് വളരെയധികം അഡ്വഞ്ചറസ് വളരെ അധികം വളരെയധികം സാഹസികം നിറഞ്ഞതും വളരെയധികം ഊർജ്ജം നിറഞ്ഞതുമായിരിക്കും മറ്റേതിൽ നമുക്ക് ഇച്ചിരി ക്ഷീണം കാണുവായിരിക്കും പക്ഷേ കാടുകളിലേക്കുള്ള നമ്മുടെ യാത്ര വളരെയധികം ഊർജ്ജവും നിറഞ്ഞതായിരിക്കും കാരണം നമുക്ക് അവിടെ കുറെ കയറ്റത്തേക്ക് പോകേണ്ട ആവശ്യം ഇല്ല നമുക്ക് സുഖമായിട്ട് തന്നെ ആ അരുവിയുടെ വക്കത്ത് വക്കത്ത് വാ അരുവിയുടെ അരികിലൂടെ നടന്നു പോയി ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ നമുക്ക് കുറെയധികം ശബ്ദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും കുറെയധികം ഗന്ധങ്ങൾ കുറെയധികം കാഴ്ചകൾ നമുക്ക് കുറെ പൂക്കൾ പൂക്കളുകളെ ശ്രദ്ധിക്കാൻ പറ്റും കുറെ ജീവികളെ കാണാനും പറ്റും അങ്ങനെ കുറെ ഒരു വളരെയധികം സാഹസികവും വളരെയധികം സംഭവങ്ങൾ ഉള്ളൊരു അനുഭവവും മാറി അനുഭവവുമായി മാറി കിട്ടും